നമ്മൾ ഇന്ത്യയിലത്തെ നിയമങ്ങൾ പ്രകാരം ഒരാൾ ചെയ്ത ജോലി അതേപോലെ വേറൊരാൾ ചെയ്യാൻ പാടില്ലയെന്നാണ് അതിൻ്റെ പകർപ്പവകാശം വേറൊരാൾ എടുത്താൽ അതു കേസാണെന്നാണ് പറയൽ അതുകൊണ്ട് വേറാൾ ചെയ്ത ജോലി അതേപോലെ കോപ്പി അടിക്കുന്നത് ഗൗരവമായിട്ടുള്ള കാര്യമാണ് പിന്നെ നിങ്ങളിപ്പോൾ സാധാ പണിക്കു പോണേന് അങ്ങനെയുള്ള നിയമങ്ങളോ പൊതുവെ ഞാൻ നോക്കാറില്ല